ഹലോ പറഞ്ഞോളൂ ആ അതെ അതെ പറഞ്ഞോളൂ സാറെ എന്തായിരുന്നു പ്രശ്നം ആ ഓക്കെ സാര് നമ്മള്ക്കത് ചെക്കിയ്തിട്ടു തന്നെയാണ് റൂം തന്നിട്ടുണ്ടായിരുന്നത് എന്തെങ്കിലും സാര് നമ്മളത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളത് ചെക്കിയ്തിട്ടാണ് റൂം അടുത്ത ഗസ്റ്റിനു കൊടുക്കാറുള്ളത് അതെ സാര് നമുക്കത് ചെക്കിയ്തിട്ടുണ്ടായിരുന്നു നമ്മളതിനു മുന്നേ പോയ ആള്ക്കാരെന്തെങ്കിലും വേണ്ടാത്ത രീതിയിലടച്ചെന്തെങ്കിലും ആക്കിയതായിരിക്കും നമ്മള് ചെക്കിയ്തിട്ടാണ് റൂം തന്നിട്ടുണ്ടായിരുന്നത് നമ്മളതൊന്നുകൂടി അതെ സാര് നമ്മള്ക്കത് മെയിന്റെനന്സിന്റെ എന്തേലും ഇഷ്യൂ ആയിരിക്കും നമ്മളതവിടെ കണ്ട് പറഞ്ഞേക്കാം ആ അതെ നമുക്കത് റെഡിയാക്കാന്വേണ്ടി മെയിന്റെനന്സിലിപ്പോള് തന്നെ അയയ്ക്കാം അ പറഞ്ഞേക്കാം നമ്മള് ആ ഓക്കെ ഓക്കെ അതു നമ്മളിപ്പോള്ത്തന്നെ റെഡിയാക്കിത്തരാം നമ്മള് മെയിന്റെനന്സിനയയ്ക്കുന്നതായിരിക്കും ഇപ്പോള്ത്തന്നെ അതെ അതെ നമ്മുടെ ഭാഗത്തെ തെറ്റു തന്നെയാണത് അതെ അതെ അതെ അതെ അതെ നമ്മള്ക്കതൊരു മിസ്റ്റേക്ക് പറ്റി നമ്മളത് റെഡിയാക്കിത്തരുന്നതാണ് ആ ഇപ്പോള്ത്തന്നെ പറഞ്ഞയയ്ക്കാം ആളെ ഒരു രണ്ട് മിനിറ്റ് മെയിന്റനന്സിലെ ആളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആളിപ്പോള്ത്തന്നെ വന്ന് റെഡിയാക്കും അതെ അതെ അതു നമ്മുടെ ഭാഗത്തു തെറ്റു പറ്റി നമ്മളത് റെഡിയാക്കിത്തരും സാര് അതെ അതെ നമ്മളത് റെഡിയാക്കിത്തരും നമ്മളത് ഒരിഷ്യൂ വന്നതാണ് നമ്മളത് നമ്മുടെ ഭാഗത്തുനിന്നു തെറ്റ് നമ്മള് പറയുന്നു അതു നമ്മള് റെഡിയാക്കാന്വേണ്ടി മെയിന്റെനന്സിനിപ്പോള് തന്നെ അയയ്ക്കാം ഒരു രണ്ട് മിനിറ്റ് വേയ്റ്റിയ്താല് മതി ആ ഓക്കെ താങ്ക്യൂ ആ ഓക്കെ ഓക്കെ അത് നമ്മള് ഇപ്പോള്ത്തന്നെ അയയ്ക്കാം ഇന്ഫോമിയ്തിട്ടുണ്ട് പറഞ്ഞിപ്പോള് അവരിപ്പോള്ത്തന്നെ വരും കാര്യം മെയിന്റെനന്സിലേക്ക് അറിയിച്ചിട്ടുണ്ട് ആ ഓക്കെ ഓക്കെ അത് അഞ്ച് മിനിറ്റിനുള്ളിലവര് വരും റെഡിയാക്കി തരും അത് എന്തെങ്കിലും ഇഷ്യൂ വന്നതായിരിക്കും മെയിന്റെനന്സിനെന്തെങ്കിലും വര്ക്കിന്റെയോ അല്ലെങ്കില് എന്തിനെങ്കിലും പറ്റിയതായിരിക്കും അവര് ചെക്കിയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ അതെ അതെ അവര് ചെക്കിയ്തിട്ടാണ് റൂം കണ്ഫേം ചെയതതെന്നാണു പറഞ്ഞത് നമ്മളും ചെക്കിയ്തിട്ടുണ്ടായിരുന്നു ആ ടൈമിലൊന്നും കുഴപ്പം ഇല്ലായിരുന്നു ഇനിയെന്തെങ്കിലും ലോക്കിന്റെ എന്തെങ്കിലും ഇഷ്യു എന്തെങ്കിലും ആയിരിക്കും അതെ അതെ നമ്മളത് ചെക്ക് ചെയ്ത ടൈമില് ഒരു പ്രശ്നവും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മള് അടുത്ത ഗെസ്റ്റ് വന്നപ്പോള് ആ റൂം കൊടുത്തത് ഇല്ലെങ്കില് നമ്മളത് മെയിന്റെനന്സിലിടേണ്ട റൂമാണ് നോക്കിയ ടൈമില് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളത് സാറിനു തന്നത് ആ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക്യൂ